ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന് കളികൾ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടത് എന്തെന്ന് വെച്ചാൽ നമ്മളൊരു കളിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെ അധികം ഉന്മേഷം കിട്ടുന്നുണ്ട് കാരണം മറ്റുള്ള ഒരു ചിന്തകളും നമ്മൾക്ക് ഉണ്ടാവാറില്ല മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും എല്ലാത്തിനും നമ്മള് കളിക്കുന്നത് വളരെ അധികം സഹായിക്കുന്നുണ്ട് നമ്മള് ഫുട്ബോള് കളിക്കുമ്പോൾ നമ്മുടെ മനസ്സു മൊത്തം കളിയിലായിരിക്കും അതുകൊണ്ടു തന്നെ നമ്മുടെ മറ്റ് ഒരു സമ്മർദ്ദങ്ങളും നമ്മുടെ മനസ്സിന് ഉണ്ടാവാറില്ല അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ഈ കളികള് വളരെയധികം പ്രയോജനകരമാണ്